അതെ ഞാൻ വളരെയധികം ചിത്രം വരയ്ക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുകയും അതിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സ്വഭാവത്തേയും നമ്മുടെ വിശ്വാസത്തേയും നമ്മുടെ ഒരു പെരുമാറ്റത്തേ ഒക്കെ മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു ആർട്ടാണ് നമുക്ക് കലയാണ് ഡ്രോയിങ് എന്നുള്ളത് അപ്പോൾ ഈ ഡ്രോയിങ്ങിലൂടെയും പോലെ ശിൽപം ശിൽപശാലികളുടെ അതിൻ്റെ ക്ലാസ്സിലൂടെയൊക്കെ നമുക്ക് കൂടുതൽ ധൈര്യം പകരാൻ ധൈര്യം പകരാനും നമുക്ക് ധൈര്യം കിട്ടാനും അതിലൂടെ സാധിക്കും പിന്നെ നമ്മുടെ ഈ ഡ്രോയിങ് എന്നുള്ളത് നമ്മളെ വളരെയധികം പുറം ലോകത്തേക്ക് അത് നമ്മുടെ ഈ ഒരു സ്വഭാവം പോയി വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടാതെ നാട്ടിലും അതുപോലെ നമ്മുടെ കോളേജുകളിലും നമ്മുടെ അയൽവാസികളും എല്ലായിടത്തും നമ്മുടെ പുറത്തൊക്കെ നമുക്ക് കൂടുതൽ ആൾ ആളുകൾ നമ്മുടെ പിന്നിൽ നിന്ന് സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഡ്രോയിങ് ഉണ്ട് മറ്റൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്താ പറയുക ആളുകളുമായിട്ട് ബന്ധപ്പെടാനും കോൺടാക്റ്റ് ഉണ്ടാകാനും അതിനൊക്കെ സാധിക്കും പിന്നെ ഈ ഡ്രോയിങ്ങിലൂടെ ഞാൻ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഇത് അറിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഈ ഡ്രോയിങ്ങും ശിൽപം ശില്പങ്ങളൊക്കെ നമ്മുടെ ലൈഫിന് ഒരു ടേണിങ് പോയിൻറ ആയിട്ടാണ് നമുക്ക് അറിയാം അപ്പം നമ്മുടെ ലൈഫിനെ തന്നെ മൊത്തത്തിൽ മാറ്റുന്നൊരു കഥയാണ് ഡ്രോയിങ്ങും അതുപോലെ ശിൽപശാലാന്ന് ഒക്കെ പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം മറ്റുള്ളവർക്ക് ധൈര്യം പകരാനും പകർന്ന് കൊടുക്കാനും ഒക്കെ പറ്റുന്നൊരു കാര്യമാണ് ഇത് വളരെയധികം നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു